മൂന്ന് മൂന്ന് രണ്ടായിരത്തിയൊന്ന് എട്ട് പതിനൊന്ന് രണ്ടായിരത്തി രണ്ട് പിന്നെ പതിനാല് നാല് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് ഇരുപത്തിരണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മൂന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന്